ഹലോ അതേ കറുകപ്പള്ളിയിലുള്ള ഇറച്ചി കടക്കാരനാല്ലേയിത് ഇറച്ചി കടേലുള്ള ആളല്ലേ കറുകപ്പള്ളീലെ കറുകപ്പള്ളി അല്ലേ മാർക്കറ്റിലെ മാർക്കറ്റിലെയാണോ ആ അതുതന്നെ മാർക്കറ്റിലെ മാർക്കറ്റിലെ സോറി കറുകപ്പള്ളിയിലെ അല്ല മാർക്കറ്റിലെ ആ ആ മാർക്കറ്റിലെ അല്ല അതെന്നാന്നറിയാവോ രണ്ടെണ്ണം മേടിച്ചു ഒന്ന് ഇത് മേടിച്ചത് ചിക്കനായിരുന്നല്ലോ അത് ബീഫ് അപ്പോൾ രണ്ടിലേതാണെന്നുള്ളത് കൺഫ്യൂഷൻ കൊണ്ട് ചോദിച്ചതാണ് ആ അത് കഴിഞ്ഞ ദിവസം ആ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ബീഫ് മേടിച്ചതായിരുന്നു അത് മോശവായിരുന്നു കറിവെക്കാനായിട്ട് എടുത്തപ്പോഴെ ഈ നിങ്ങൾ ഫ്രിഡ്ജിൽ വച്ച് ഇറച്ചിയായിരുന്നോ തന്നത് വളരെ മോശമായിരുന്നു ആ ഇറച്ചി വെളുത്തോണ്ടിരിക്കുവായിരുന്നു അയ്യോ അങ്ങനെയല്ലല്ലോ പക്ഷേ എനിക്കിവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് വെളുത്തോണ്ടിരുന്നു അത് കറി വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ബിള് ബിളാന്ന് കിടക്കുന്നു ഒറോക്ക് ബീഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നേൽ ഒന്ന് തൊടാതെ കിട്ടേണ്ടതല്ലേ ഫ്രൈ ആക്കുമ്പോൾ ഇത് ഒരുമാതിരി കൊള്ളത്തില്ലായിരുന്നു പിള്ളേർക്കെല്ലാം കഴിച്ചിട്ട് ഭയങ്കര വയറുവേദനയും കാര്യങ്ങളുവൊക്കെ ആയിരുന്നു പിള്ളേർക്ക് അതെ അതെ ആണ് ആണ് ആണ് ഞാനിപ്പോൾ ഹസ്ബൻറ്റിനോട് ചോദിച്ചിട്ടാണ് പറയുന്നത് ആ ആണ് ആണ് ആണ് ആ പുള്ളിക്കാരനാണ് അവിടെന്നാണ് വാങ്ങിച്ചത് ഇവിടുന്ന് ചിക്കെനും വാങ്ങിച്ചുന്നാണ് പറഞ്ഞത് കറുകപ്പള്ളീന്ന് ചിക്കെനും വാങ്ങിച്ചു ഒരു കിലോ ഒരു കിലോ ബീഫാണ് ഞങ്ങൾ മാർക്കറ്റീന് വാങ്ങിച്ചത് ഇല്ല ചിക്കൻ വാങ്ങിച്ചത് കറുകപ്പള്ളീന്നായിരുന്നു ബീഫ് വാങ്ങിച്ചത് ആ ബീഫ് വാങ്ങിച്ചതാണ് ഞങ്ങൾ മാർക്കറ്റിന്ന് ആ ബീഫാണ് കൊള്ളരുതല്ലാത്ത ഒലത്തിയപ്പം ഇങ്ങനെ ബിള് ബിളാന്ന് കിടക്കുവായിരുന്നു ഭയങ്കര വെളുത്തോണ്ടാണിരുന്നത് ഫ്രിഡ്ജീന്ന് എടുത്തിട്ട് നമ്മൾ രണ്ട് ദിവസം ഫ്രിഡ്ജീന്നെടുക്കുന്ന ഫ്രീസറീന്നെടുക്കുന്ന ഇറച്ചി പോലയായിരുന്നത് അത് കഴിച്ചിട്ട് കുഞ്ഞുങ്ങക്ക് ഭയങ്കര വയറുവേദനയും കാര്യങ്ങളുവൊക്കെ ആയിരുന്നു അപ്പോൾ അതാണ് ഞാൻ വിളിച്ചത് ഇത് നിങ്ങൾ ദിവസവും വെട്ടുന്ന ഇറച്ചി അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് ഇങ്ങനെ മനുഷ്യരെങ്ങനെ മേടിക്കും ഒരുമാ ഞങ്ങൾ ഞായറാഴ്ച വെളുപ്പിനാണ് ഞായറാഴ്ച വെളുപ്പിന് പള്ളിയും കഴിഞ്ഞ് വരുന്ന വഴിയാണ് ഞങ്ങൾ വാങ്ങിച്ചത്

ആ സമയെത്രയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഞങ്ങൾ പള്ളി പിരിഞ്ഞു വരുന്ന വഴിയാണ് മേടിച്ചത് അന്ന് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഓലത്തുവെ ചെയ്തു അന്നുതന്നെ കറി വെച്ചു ഇല്ല ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല ഞങ്ങൾ അന്ന് തന്നെ ഇല്ല പള്ളി ആ അതെ ആ പക്ഷേ ഞങ്ങൾക്കതിവിടെ കൊണ്ടുവന്നപ്പോൾ എങ്ങനെയാണ് ഇരുന്നേച്ചത് ഞങ്ങൾ നേരെ പള്ളീന്ന് വന്നു വീട്ടിൽ വന്ന് കയറി വെക്കുകയായിരുന്നു കറിവെക്കാനായിട്ട് എടുത്തു എടുത്തപ്പഴേ അതൊരു വെളുത്താണ് വെള്ള കളറിലായിരുന്നു ഒരുമാതിരി ചോരമയമില്ലാത്ത ഇറച്ചി പോലെ ഇരുന്നത്

അതിലിൽ മാർക്കറ്റിന്നാണ് നമ്മൾ അതുകൊണ്ടാണ് ഈ കൂടുതൽ സാധനങ്ങൾ വരുമ്പോൾ തലേദിവസത്തെങ്ങാനും എടുത്തു ഫ്രിഡ്ജി വച്ചിട്ടുണ്ടോന്നറിയാനാണീ ചോദിച്ചത് അതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടോന്നറിയാനായിട്ട് ആ ഭയങ്കരമായിട്ട് മോശമായിട്ട് തോന്നിയത് കാരണം ഇറച്ചി എടുത്തപ്പഴേ ഒരു ചോരമയം ഇല്ലെന്നേ വെളുത്തോണ്ടിരിക്കുന്നു ആ ഇറച്ചി പിന്നെ അത് കഴുകി കറിവെച്ച് കഴിഞ്ഞപ്പം കുഞ്ഞുങ്ങൾക്ക് അത് നമുക്ക് ഫ്രൈ ആവുമ്പോൾ നല്ല ഇറച്ചിയാണ് നമുക്ക് ഒന്നേലൊന്ന് തൊടാതെ കിട്ടും ഇതിങ്ങനെ ഒരുമാതിരി കുഴമ്പ് രൂപത്തിൽ ഇരുന്ന് അതെ അതെ ഞങ്ങൾ ചക്കരകളപള്ളി വന്നിട്ട് അവിടുന്നാണ് നേരെ വന്ന് മാർക്കറ്റി വന്നിട്ട് ഞങ്ങൾ വാങ്ങിക്കാറുള്ളതാണ്

അതേ പിറ്റേദിവസം കുഞ്ഞിന് വയറ് വേദനയായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ നടക്കുവായിരുന്നു അന്നേ അതുകൊണ്ടെട്ടായിപ്പോയി അതുകൊണ്ടായിപ്പോയി അതാണ്

ആ ആ ആ ഡിസ്കൗണ്ട് തന്നില്ലേലും നല്ലത് നല്ലത് കൊടുത്താൽ മതി ഡിസ്കൗണ്ട് തന്നില്ലേലും കുഴപ്പമില്ല നല്ലത് തന്നാൽ മതി കേട്ടോ ആ ആ ആ ശരി ഓക്കെ ഓക്കെ എന്നാൽ ഓക്കെ